മതപരമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ പിന്നെ പൊങ്കാല പൊങ്കാല പൊങ്കാല നൈവേദ്യം അരവണപ്പായസം അങ്ങനെ ക്രിസ്ത്യൻ പള്ളികളിൽ ബന്ന് പഴം പായ്സം നിവേ പായസം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കും ഉത്സവസ്ഥലങ്ങളിൽ നിവേദ്യങ്ങൾ കൊടുക്കും പൊരി കൊടുക്കും പിന്നെ പള്ളികളിൽ വാ പായ് നേ മാർച്ച് പത്തൊൻപതാം തിയ്യതി ഊണ് കൊടുക്കും പല നേർച്ചകളും പള്ളികളിൽ കൊടുക്കും ഉണ്ണിയപ്പം കൊടുക്കും പൊരി കൊടുക്കും ഉപ്പും കുരുമുളകും കൊടുക്കും അങ്ങനെ പല കാര്യങ്ങളും നേർച്ച കൊടുക്കും പ്രത്യേക സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഉത്സവങ്ങൾക്കായി അങ്ങനെ ഓരോ ഭക്ഷണസാധനങ്ങൾ നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം ഓരോ സാധനങ്ങൾ കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് വേറെ പള്ളികളിൽ കഞ്ഞി ഈന്തപ്പഴം മറ്റ് സാധനങ്ങളൊക്ക പള്ളികളിൽ നേർച്ച കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് നേർച്ച സാധനങ്ങൾ കൊടുത്ത് എല്ലാ മതപരമായ രീതിയിലും ഭക്ഷണ സാധനങ്ങൾ ജനങ്ങൾക്ക് പള്ളികളിൽ അമ്പലങ്ങളിലും ഉത്സവവേദികളിലും നൽകുന്നുണ്ട്